ഹലോ സെഞ്ച്വറി അല്ലേ ആ അപ്പോൾ എനിക്ക് ഓണത്തിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാ എല്ലാ ഡ്രസ്സും വേണം നമ്മൾ എൻ്റെ മക്കളുണ്ട് മക്കൾക്കുള്ള ഡ്രസ്സ് പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് അച്ഛന് അമ്മ ആ അച്ഛന് അമ്മയ്ക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടായിരുന്നു ആ അതെ അപ്പോൾ ആ ആ ഓക്കെ ഓക്കെ

ആ ആ ആ ഓക്കെ ഓക്കെ നിങ്ങളുടെ ഷോപ്പ് കറക്റ്റ് എവിടെയായിട്ടായിരുന്നു അതിന്റെ അടുത്ത് തന്നെയാണല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമല്ലേ

മാറ്റി വയ്ക്കാൻ പറ്റുമല്ലേ ആ ഓക്കെ ഓക്കെ ഇത് ഞായറാഴ്ച്ചയൊക്കെ ഓപ്പൺ അല്ലേ ഓപ്പൺ ആണ് അല്ലേ ആ ഓക്കെ എങ്കിൽ ഞാൻ ഞായറാഴ്ച്ച ഒരു ദിവസം വരാം എന്തായാലും പരമാവധി ആ ഓക്കെ പരമാവധി ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരില്ലേ നിങ്ങൾ ആ ഓക്കെ ഓക്കെ ആ പിന്നെ ഷർട്ടിനൊക്കെ എത്ര റേറ്റ് വരുന്നത് ആ ചെറിയ കുട്ടികളുടെ ഒക്കെ ഉണ്ടോ സ്റ്റാർട്ട് ചെയ്യും അല്ലേ ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഈ നമുക്ക് എനിക്ക് ഞാ എൻ്റെ ഫാമിലിക്ക് എടുക്കുന്നത് കുറച്ച് ബ്രാൻഡ് ഐറ്റംസ് ആണ് പുറമേ ഞാൻ അല്ലാണ്ട് കുറച്ച് പേർക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് നോർമൽ ആയിട്ടുള്ള ഐറ്റം ആണ് സെലക്ട് ചെയ്ത് എടുത്താൽ മതി അല്ലേ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഈ സൺഡേ ഞാൻ വരാം ഓക്കെ എന്നാൽ